ഇപ്പോൾ ഞങ്ങളുടെ സമൂഹത്തിൽ നൃത്തം വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം എന്തെങ്കിലും ഒരു പാട്ട് കേട്ടാൽ ആരായാലും ഒന്ന് നൃത്തം ചെയ്തുപോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അയി അതിന് അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഉത്സവ പരിപാടികളിൽ ഒക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു ഗാനമേളയോ കാര്യങ്ങളോ കേട്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പരിപാടികൾ ഇപ്പോൾ സ്കൂളിൽ ആണെങ്കിലും ഇപ്പം കോളേജിൽ ആണെങ്കിലും അങ്ങനെ പല രീതിയിലുള്ള പരിപാടികൾ ഇപ്പോൾ ഓണ പരിപാടിയൊക്കെ ആണെങ്കിലും നമ്മൾ ഡാൻസ് ഡാൻസ് പരിപാടികൾ അങ്ങനെ മത്സരങ്ങൾ കാര്യങ്ങൾ ഒക്കെ വയ്ക്കാറുണ്ട് അപ്പം നല്ല രീതിയിലുള്ള ഡാൻസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും അന്ന് അപ്പം നൃത്തം ഒരു ക കല മാത്രമല്ല നമുക്ക് പല നന്ന നല്ല നന്നായിട്ട് പെർ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് ഇപ്പോൾ ഉത്സവ പരിപാടികളിളൊക്കെ ആണെങ്കിലും ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നൃത്തം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ